അപ്പോൾ നമ്മുടെ ഗവൺമെന്റ്ന്നു പറയുമ്പോൾ നമുക്ക് വേണ്ടിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുതരുന്നുണ്ട് ഇപ്പം ഫ്രീയായിട്ടുള്ള എഡ്യുകേഷൻ കാര്യങ്ങള് അതുപോലെ ബുക്ക് കാര്യങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നു യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ ആരോഗ്യ മേഖലയാണ്ന്ന് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാര്യങ്ങള് ആണെങ്കി ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടിട്ട് ഫ്രീ ആയിട്ടുള്ള മെഡിസിൻ കാര്യങ്ങള് ഡോക്ടേഴ്സ് കാര്യങ്ങള് പരിശോധന ചിലവ് കാര്യങ്ങള് എല്ലാം ഫ്രീ ആയിട്ടും അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആയിട്ട് വേണ്ടിട്ട് നമുക്ക് ഇപ്പം എന്താണ് റേഷൻ കടകള് കാര്യങ്ങള് ഒക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോന്നും സൗജന്യമായിട്ട് അവരുടെ ഓരോരുത്തരുടെ കാറ്റഗറിസ് ബേസിലും അങ്ങനെ ഇങ്ങനെ ഒക്കെ ആയിട്ട് ഓരോന്നും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കയാണ് ഗവൺമെന്റ് അവരെ ഒരു നല്ല സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഓരോന്നും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ ഇപ്പൊ വിദ്യാഭ്യാസത്തില് തന്നെ ആണെന്നുണ്ടെങ്കില് മുന്നോട്ട് വരാന് വേണ്ടിട്ടും നല്ല ജോബ് കാര്യങ്ങള് കിട്ടാന് വേണ്ടിട്ടും മുൻഗണന കാര്യങ്ങള് ആയിട്ടും ഓരോന്ന് പ്രൊവൈഡ് ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗവൺമെന്റ്